കേരളം സന്ദർശിക്കുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് പരീക്ഷിക്കാവുന്ന ഒരുപാട് പ്രാദേശികമായ വിനോദ രൂപങ്ങൾ ഉണ്ട് ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തെരുവ് നാടകങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് അതായത് നമുക്കതൊക്കെ ഫ്രീയായിട്ട് കാണൻ പറ്റുന്നതാണ് പിന്നേന്നു വെച്ചിട്ടിണ്ടെങ്കിൽ ഉത്സവങ്ങൾ ഒരുപാട് ഉത്സവങ്ങൾ ഉത്സവ സമയത്തൊക്കെ ഒരുപാട് പ്രാധാന്യം പിന്നെ വിദേശികളൊക്കെ നമുക്കിവിടെ കേരളത്തിലെത്തി ചേരാറുണ്ട് അപ്പോൾ അവരത് അതൊന്നും കാണാത്തവരാണല്ലോ അവിടെയൊക്കെ എന്നു വെച്ചിട്ടിണ്ടെങ്കിൽ ഉത്സവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുല്ലല്ലോ അപ്പോൾ അതൊക്കെ അവർക്കൊരു വ്യത്യസ്ത തരമായിട്ടുള്ള ഒരു അനുഭവങ്ങളായിക്കും പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പരമ്പരാഗത കലകൾ പിന്നതുപോലെ കഥകളി കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം പിന്നെ തിരുവാതിര കോൽക്കളി പിന്നെ അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ അവർക്ക് കാണാൻ പറ്റും പിന്നെ അതൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതും അവർക്ക് പിന്നെ വ്യത്യസ്ഥമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വിഷു തോൽപ്പാവക്കൂത്ത് കേരള പൂപ്പേട്രി മോഹിനിയാട്ടം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് ഇവിടെ വന്നു കണ്ടിട്ട് പിന്നെ അനുഭവങ്ങളൊക്കെ പിന്നെ സ്വീകരിക്കാൻ പറ്റും